തീർച്ചയായിട്ടും ഞാനെൻ്റെ കുട്ടിക്കാലത്തൊരുപാട് കൂട്ടുകാരുടെ കൂടെ പോയി ഇങ്ങനെ എൻ്റെ കൂട്ടുകാരെനിക്ക് മയിൽപ്പീലി കൊണ്ടുതരുമായിരുന്നു മയിൽപ്പീലി പുസ്തകത്തിനകത്തൊളിപ്പിച്ചു വെക്കുവാണെങ്കിൽ അത് പെറ്റു പെരുകുമെന്നും ഒരുപാട് മയിൽപ്പീലി ഉണ്ടാകുവെന്നൊക്കെ പറഞ്ഞ് ഞാനത് വളരെ ഭദ്രമായിട്ടെൻ്റെ പുസ്തകത്തിൻ്റെ താളുകളിലൊക്കെ മയിൽപ്പീലി ഒളിപ്പിച്ച് വെക്കുമായിരുന്നു അങ്ങനെ മയിൽപ്പീലി ഒളിച്ച് വെപ്പിക്കുമ്പോൾ പറയും അത് സൂര്യപ്രകാശം കാണരുത് സൂര്യപ്രകാശം കാണാതെ വേണം ഒളിപ്പിച്ച് വെക്കാനെന്നു പറയും അപ്പോൾ അത് വളരെ ഭദ്രമായിട്ടാണ് കയ്യിലൊതുക്കിപ്പിടിച്ച് മേടിച്ചിട്ട് പെട്ടെന്ന് പുസ്തകത്തിൻ്റെ താളൊക്കെ തുറന്നിട്ട് അതിനകത്തൊക്കെ അടച്ച് വെക്കുമായിരുന്നു അതുപോലെതന്നെ നല്ല ഭംഗിയുള്ള വെള്ളാരം കല്ലുകൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടവായിരുന്നു ഈ തോടിൻ്റെ അടുത്ത് കൂടെ പോയിട്ട് ചെറിയ നല്ല ഷേയ്പ്പുള്ള ഉരുണ്ടതോന്നും അല്ല പല തരത്തിലുള്ള നമുക്കിങ്ങനെ ഷേയ്പ്പ് തോന്നുന്ന തരത്തിലുള്ള വെള്ളാരം കല്ലുകളൊക്കെ പെറുക്കി സൂക്ഷിച്ച് വെക്കുവായിരുന്നു അങ്ങനെ അതുപോലെ തന്നെ എനിക്കൊരുപാട് ഇഷ്ടവായിരുന്നു ഈ ഒരു നല്ല നല്ല നല്ല പേനകൾ പേനകളൊക്ക സൂക്ഷിച്ച് വെക്കുന്നതൊക്കെ ഇഷ്ടവായിരുന്നു നല്ല തരത്തിലുള്ള പണ്ടത്തെ ഹീറോ പേനകൾ അതുപോലെ തന്നെ ബോൾ പേനകൾ പലതരത്തിലുള്ള പേനകളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുവായിരുന്നു പിന്നെ എനിക്ക് ഈ ചില ആൾ ചില വ്യക്തികളെ എനിക്ക് ഭയങ്കര ഇഷ്ടവായിരുന്നു അങ്ങനെയൊരു ഹോബി ഉണ്ടായിരുന്നു എനിക്ക് ചില വ്യക്തികൾ അതായതിങ്ങനെ ഫേയ്മസായിട്ട് ഉള്ള ചില നമ്മുടെ രാഷ്ട്രപിതാക്കന്മാർ അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിമാർ അല്ലെങ്കിൽ അതുപോലെ ഉള്ള സെലിബ്രിറ്റികൾ അതുപോലുള്ള ആൾക്കാരെയൊക്കെ അവരുടെ ഒക്കെ ഫോ പടങ്ങളൊക്കെ പത്രത്തിലൊക്കെ വരുമ്പോൾ അതൊക്കെ അങ്ങനെ വെട്ടി ഒട്ടിച്ച് ബുക്കിനകത്തിങ്ങനെ ഒരു പഴയ ബുക്കെടുത്തിട്ട് അതിനകത്തിങ്ങനെ ഒട്ടിച്ചുവെക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സിനിമാതാരങ്ങൽ ഇഷ്ടപ്പെട്ട വലിയ ഫേയ്മസ് ആയിട്ടുള്ള ആൾക്കാർ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ പടങ്ങളൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടത് ഒട്ടിച്ച് ബുക്കിനകത്ത് വെക്കുന്ന ഒരു അത് എനിക്ക് ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ എനിക്കൊരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ടായിരുന്നു പാട്ട് കേൾക്കുന്നത് പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ട പാട്ടുകളെല്ലാം എഴുതി വെക്കുന്ന ഒരു ഡയറി ഉണ്ടായിരുന്നെനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെല്ലാം എഴുതി കളക്ട് ചെയ്ത് അ ആ ഡയറി ഇന്നും എൻ്റെ കയ്യിലുണ്ട് അങ്ങനത്തേതൊക്കെ സൂക്ഷിച്ചൊക്കെ വെക്കാറുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ കൂടുതൽ അവർ അന്നത്തെ അത്രയും പഴയ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കുട്ടികളത്ര നിഷ്ക്കളങ്കരാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് നൂറുശതമാനമാണെന്ന് പറയാനാവില്ല കാരണം ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതലും മൊബൈൽ അതുപോലെതന്നെ പുതിയ പുതിയ മാധ്യമങ്ങളിലൊക്കെയാണ് അവർ കൂടുതലും ശ്രദ്ധിക്കുന്നത് അവർക്കതൊക്കെയാണ് താല്പര്യം അവർക്കിതുപോലുള്ള നമ്മൾ അതൊക്കെ പറയുമ്പം പഴംപുരാണം പറയുന്ന പോലുള്ളൊരു തോന്നലൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ശരിക്കും എനിക്കങ്ങനെയാണ് തോന്നുന്നത് കാരണം അവർക്കതൊക്കെ ബോറടിയായിട്ടാണ് തോന്നുന്നത് അവർ ഫോണിന്റെ അകത്ത് ഗെയിമുകൾ കളിക്കുക അല്ലെങ്കിൽ ഫോണിന്റെ അകത്ത് എന്തെങ്കിലും റീൽസുകൾ പോലുള്ള സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കും എന്തെങ്കിലും ഒക്കെ എൻറ്റർടെയ്ൻമെൻറ്റായിട്ടുള്ള സാധനങ്ങൾ വിനോദത്തിനായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിനായിട്ടവർ ഫോൺ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നായിട്ടാണ് നമ്മൾ കൂടുതലും കാണുന്നത് അല്ലാതെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ശേഖരിക്കുന്നതോ പിന്നെ ഈ മീനുകളെ വളർത്തുക അതുപോലെതന്നെ മുറ്റത്തൊരുപാട് പൂച്ചെടികൾ നട്ടു പിടിപ്പിക്കുക പൂച്ചെടികൾ നനയ്ക്കുക വൈകുന്നേരം സ്കൂള് വിട്ട് വന്ന് കഴിഞ്ഞാൽ പൂച്ചെടികൾ നനയ്ക്കുക പൂച്ചെടികളെ പരിപാലിക്കുക അതിൻ്റെ ചുവട്ടിൽ വളവിട്ട് കൊടുക്കുക വെള്ളം ഒഴിക്കുക നല്ല നല്ല പൂച്ചെടികൾ കാണുമ്പോൾ അതിനെ ഒന്ന് താലോലിക്കുക അതിൻ്റെയടുത്ത് പോയി കുറച്ച് നേരം നിൽക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മക്കളും കുറച്ചൊക്കെ അങ്ങനെ ഒക്കെ ചെയ്യാറുണ്ട് എന്നാലും അവർക്ക് കൂടുതൽ താല്പര്യം ഇങ്ങനെയുള്ള ചില വിനോദ ഉപാധികളൊക്കെ ആയിട്ടിരിക്കുന്നതാണ്